ഞാന് വായിച്ചതില് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയില് നിന്നും അരങ്ങത്തേക്ക് എന്ന പുസ്തകം അത് പേര് പേരിന് തന്നെ നമുക്കറിയാം സ്ത്രീകളെ അടുക്കളയില് നിന്നും അരങ്ങത്തേക്കുള്ള സ്ത്രീകളുടെ ആ ഒരു എന്താ പറയുക അവിടുന്നുള്ള ഒരു യാത്ര ഒരു പുസ്തകമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാടകമായിരുന്ന് ഇത് അപ്പോൾ അന്നത്തെ കാലത്ത് കാലഘട്ടങ്ങളില് അപ്പോൾ നമ്പൂതിരി വിഭാഗത്തിൽ പെട്ട നമ്പൂതിരി എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടങ്ങള് അല്ലെങ്കില് ആയിരത്തി തൊള്ളായിരത്തി ആരുന്ന് നാപ്പതുകളിലൊക്കെ നോക്കാണ് വെച്ചാ ന്ന നല്ല രീതിയില് അല്ലെങ്കില് ഉയര്ന്ന വിഭാഗത്തില്പ്പെട്ട ആള്ക്കാരായിരുന്നു ആ നമ്പൂതിരി വിഭാഗത്തിലുള്ളവര് എന്നാല് നമ്പൂതിരി വിഭാഗത്തില്പ്പെട്ടവർ തന്നെ സ്ത്രീകളായിക്കോട്ടെ അവരെ അന്തര്ജ്ജനങ്ങള് ആയിട്ട് അല്ലെങ്കില് വീടുകളിലുള്ളില് തന്നെ തളച്ചപ്പെട്ടവരായിട്ട് മാറുകയാണ് ആരോടും സംസാരിക്കാനും മറ്റും കാര്യങ്ങളോ ഒന്നും അവര്ക്ക് അവസരങ്ങളോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് ഒരു സംബന്ധം എന്ന് പറയുന്ന ഒരു ഏര്പ്പാടുണ്ടായിരുന്നു ആ രീതിയിൽ നോക്കാണെന്ന് വെച്ചാൽ നമ്പൂതിരി വിഭാഗങ്ങളിലെ ഏറ്റവും മുതിര്ന്ന ആളായ അപ്പനെന്ന് പറയും അല്ലെങ്കില് മൂത്ത സഹോദരനെ അപ്പന് വിവാഹം കഴിക്കാനുള്ള അധികാരവുണ്ട് എന്നാല് അദ്ദേഹത്തിന് താഴ് താഴെയുള്ള സഹോദരങ്ങള്ക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല അപ്പോൾ മറ്റ് നായർ സ്ത്രീകള് നമ്പൂതിരി സ്ത്രീകളുവായിട്ട് സംബന്ധം കൂടാനെ അവര്ക്ക് പറ്റുക ഉണ്ടായിരുന്നുള്ളു അങ്ങനെ സംബന്ധം കൂടുന്ന സംബന്ധം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികള് അവരുടെ കുട്ടികള്ക്ക് പിന്നെ അച്ഛനെ പേരിലുള്ള അവകാശവും മറ്റ് കാര്യങ്ങളൊന്നു ഉണ്ടാവില്ല അമ്മയുടെ പേരിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ അന്നത്തെ കാലഘട്ടം ഉണ്ടായിര്ന്ന ഒരുപാട് പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അന്ന് വിടി അതിലൂടെ ചിത്രീകരിച്ചിണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് എന്നെ ഒരുപാട് സ്വാധീനിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ അത്തരമൊരു കാലഘട്ടത്തില് നിന്ന് ഇന്നത്തെ ഒരു കേരളത്തിലോട്ട് അലെങ്കിൽ ഇന്നത്തെ കേരളത്തില് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഈയൊരു സ്വാതന്ത്ര്യലോ സ്വാ സ്വാതന്ത്ര്യത്തിലൂടെ എത്താന് ഒരുപാട് സമയമെടുത്തിരുന്നു ഒരുപാട് ആള്ക്കാരുടെ ത്യാഗവും മറ്റു പോരാട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി